ആ ഹലോ ഇത് ട്രാവൽ ഏജൻറ് ഞാൻ ട്രാവൽ ഏജൻസി അല്ലേ വണ്ടിയുടെ ആണല്ലേ എനിക്ക് വൈക്കം മഹാദേവക്ഷേത്രത്തിൽ ഒന്ന് തൊഴാൻ പോവാനായിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വണ്ടി എടുക്കാൻ എ സി ഉള്ളതിന് നോ ആണ് എ സി ഇല്ലാത്തതിന് റേറ്റ് പറയണമെന്ന് കിലോമീറ്ററിന് കിലോമീറ്റർ റേറ്റ് അല്ലേ നിങ്ങളുടേത് ഞങ്ങൾ ഒരു ആറ് ഏഴ് പേരോളം ഉണ്ട് അതിന് പറ്റിയ വണ്ടി വേണം അമേസ് വേണ്ട ഇന്നോവ ആവുമ്പോൾ അത് അതാവുമ്പം യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ കിട്ടും അത്ര ആൾക്കാർ ഉള്ളതല്ലേ ഏ അത് അത് എ സി ഉള്ളതാണോ എ സി ഇല്ലാത്തതാണോ എ സി ഇഷ്ടമാണ് ആ അതെ അല്ലേ

അപ്പം അത് ഡ്രൈവർക്ക് എല്ലാം എങ്ങനെയാണ് പ ഇത് ഈ പറഞ്ഞ കിലോമീറ്ററിനകത്ത് വരുന്നതാണോ പൈസ അയാളുടെ ശമ്പളം അതോ നമ്മൾ അഡീഷണൽ ബാറ്റ കൊടുക്കണോ

ആണല്ലേ ആ എനിക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തിങ്കൾ ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടി തരണേ വണ്ടിയേ ആ ഞാൻ നമ്മുടെ ലൊക്കേഷൻ പിന്നെ നിക്കാ ഇത് ഞാൻ ഇട്ടേക്കാം റൂട്ട് മാപ്പ് ഇട്ടേക്കാം വരുന്ന സ്ഥലമേ വരേണ്ടത് ആ എന്നാൽ ശരി ആയിക്കോട്ടെ ഓ അഡ്വാൻസ് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ വരുന്നത് എത്ര രൂപ തരണം ആ ഇരുനൂറ്റമ്പതോ ഞങ്ങൾ അഞ്ഞൂറ് ഇട്ടേക്കാം ഞാൻ എന്നാൽ ഏതായാലും പൈസ തരേണ്ടതല്ലേ ശരി ഓ ആ ശരി വൈ വൈറ്റ് വണ്ടി വേണം വൈറ്റ് വണ്ടിയേ ആ ശരി ശരി